ഹലോ ഊബറല്ലെ എനിക്കൊരു ക്യാബ് വേണമായിരുന്നു ഒന്ന് മാനന്തവാടി വരെ പോയിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു എക്സ്പ്ലോറിങ്ങ് ആയിട്ടാണ് കുറച്ച് സ്ഥലങ്ങളിൽ പോകുവാനുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് അപ്പം ഞാനിപ്പോഴൊരു ഹോൾ വയനാടാണ് നോക്കുന്നത് അപ്പം നാലു പേർക്കിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇതിന് സീറ്റിനെത്രയാണ് വരുന്നത് ഡേയാണോ ഡേ എത്ര വരിക

എയിറ്റ് തൗസൻ്റ് ഓക്കേ നമ്മൾ ഇതിനാണോ ഓടുന്നത് നമ്മുടെ കിലോമീറ്റേഴ്സിന് അനുസരിച്ചല്ലേ ഓക്കേ അപ്പോൾ ആറുപേർക്ക് ഇരിക്കാനാവുമ്പോഴോ ഓ ഓക്കേ ഓക്കേ നാലുപേർക്ക് ഫോർ തൗസൻ്റും ആറുപേർക്ക് എയിറ്റ് തൗസൻ്റ് ഓക്കേ അപ്പം ഇപ്പം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റുകൊണ്ട് ഹാഫ് അവറാണോ ഓക്കേ അപ്പം രണ്ട് വണ്ടി വേണമായിരുന്നു അപ്പം ഇപ്പം ഒരാറുപേർക്ക് ഉള്ള സീറ്റ് മതി ആ ഓക്കേ എട്ടായിരം ആ ഞങ്ങൾക്കൊരു ത്രീ ഡേയ്സ് ആണ് നോക്കുന്നത് ആ ഓക്കേ ഓക്കേ ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ഓക്കേ താങ്ക് യു